എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നു പറയുന്നത് വസ്ത്രമേഖലയോടാണ് വസ്ത്രമേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ തിരഞ്ഞെടുത്ത കോഴ്സ് പോലും ഫാഷൻ ഡിസൈനിംങ്ങാണ് ഫാഷൻ ഡിസൈനിംങ്ങ് മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊരു എൻ്റെയൊരു കഴിവും എൻ്റെയൊരു ഡ്രോയിംങ്ങിൻ്റെ ഇതാണെങ്കിലും വരയ്ക്കാനാണെങ്കിലും സ്റ്റിച്ചിംങ്ങിലാണെങ്കിലും സ്റ്റോൺ വർക്സ് ആണെങ്കിലും എല്ലാം ഞാൻ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഫാഷൻ ഡിസൈനിംങ്ങ് തിരഞ്ഞെടുത്തത് അത് മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം സ്വന്തമായിട്ടൊരു കമ്പിനി തുടങ്ങണം എന്നുള്ളതാണ് ഡ്രസ്സിംങ്ങിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ഡ്രസ്സസ്സ് ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ഫാഷൻസ് വരികയും പഴയ ഫാഷൻസെല്ലാം പോവുകയും ചെയ്യുന്നുണ്ട് പഴയ ഫാഷൻസിൽ തന്നെ പുതിയ പുതിയ ഫാഷൻസ് ക്രിയേറ്റ് ചെയ്യാനും പുതിയതായിട്ടുള്ളത് ചെയ്യാനും അങ്ങനെയെല്ലാം പല പല ആഗ്രഹങ്ങളെനിക്കുണ്ട് അതുമാത്രം അല്ല നമ്മളൊരു വസ്ത്രത്തിൽ നെയ്തെടുക്കുന്നതാണെങ്കിൽ പോലും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾകൊണ്ട് വരാനാണെങ്കിലും ഞാഗ്രഹിക്കുന്നുണ്ട് നെയ്ത്ത് നെയ്ത്ത് പണ്ട് മുതൽ നമ്മൾ കാണുന്നവർ കാര്യം ആണ് ഈ വട്ടം ഇപ്പോഴത്തെ നെയ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പല പല കാര്യങ്ങളതിനകത്ത് ഏഡ്ഡ് ചെയ്യുന്നുണ്ട് വസ്ത്രത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു വസ്ത്രം അല്ല നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ പല പല ഡ്രസ്സസുണ്ട് പല പല ഡ്രസ്സ് പല പല പാറ്റേൺ പല പല ഡിസൈനിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ആൾക്കാരും എൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എനിക്ക് നല്ല രീതിക്കൊരു ഷോപ്പ് ഇടണമെന്നും അതെങ്ങനെ നെയ്യണമെന്നും എല്ലാം ഭയങ്കര ആഗ്രഹം ഉള്ള ആളാണ് സോ ഞാൻ സ്വന്തമായി തന്നെ പാറ്റേൺ ചെയ്യുന്നത് കൊണ്ടും കട്ടിംഗാണെങ്കിലും സ്റ്റിച്ചിങ്ങാണെങ്കിലും വളരെ താൽപ്പര്യം ഉള്ളതുകൊണ്ട് എനിക്കുതന്നെ സ്റ്റിച്ച് ചെയ്ത് എനിക്കുതന്നെ ഇപ്പോൾ എൻ്റെയൊരു ഗാർമെൻ്റാണെങ്കിൽപ്പോലും എനിക്കുതന്നെ സ്റ്റിച്ച് ചെയ്ത് എനിക്കുതന്നെ പ്രോപ്പറായിട്ടുള്ള വർക്ക് കൊടുത്ത് കല്ല്യാണ സാരീസാണെങ്കിലും എന്ത് വേണമെങ്കിലും എന്ത് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസാണെങ്കിലും ഞങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾക്കൊരു സന്തോഷമാണെങ്കിലും അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു ഷോപ്പ് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് അതിനുള്ള കഴിവുണ്ട് അപ്പോൾ എനിക്ക് ആ ഷോപ്പ് തുടങ്ങാൻ കഴിയും അപ്പം നെയ്ത്തൊക്കെ ആവുമ്പോഴത്തേക്കും ഇപ്പോഴത്തെതന്നെ സാരി കസവുമുണ്ട് എല്ലാം പല പല പണ്ടത്തെ പോലെയല്ല പുതിയ പുതിയ ഡിസൈൻസിലാണ് ചെയ്യുന്നത് ആ ഡിസൈൻസെല്ലാം ഉൾക്കൊണ്ട് എനിക്കിപ്പം പുതുതായി ഓരോ ഡ്രസ്സസുകൊണ്ട് വരണമെന്നും പുതിയതായി കുറേ പാറ്റേൺസ് കൊണ്ടുവരണമെന്നും പുതിയതായി കുറേ കുറേ ഡിസൈൻസ് കൊണ്ടുവരണമെന്നും അതെല്ലാം ഫുള്ള് ആൾക്കാർ അത് കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ ഒരു സന്തോഷം കാണുമ്പോഴാണ് നമ്മൾക്കൊരു എനർജി കിട്ടുന്നേത് അത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ലക്ഷ്യം എന്നു പറയുന്നത് എനിക്കൊരു മെയിനായിട്ട് എനിക്കൊരു സ്ഥാപനം തുടങ്ങണം അത് വസ്ത്രത്തിൻ്റെ മെയിനായിട്ട് വസ്ത്രത്തിൻ്റെ തുടങ്ങി സ്റ്റിച്ചിങ്ങാണെങ്കിൽപ്പോലും എല്ലാം അവിടെ നിന്ന് തന്നെ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം അതാണെൻ്റെ ലക്ഷ്യം